ഇന്ത്യയിൽ ഉള്ള വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോകണം എങ്കില് നല്ല രീതിയിലുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവിശ്യമാണ് എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ സ്കൂളുകള് കാര്യങ്ങൾ ഒന്നും ഉണ്ടാകില്ല നമ്മള് കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളിയായിട്ടുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പം അവർക്ക് നല്ല രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അവർക്ക് എങ്ങനെയുള്ള ഒരു വിദ്യഭ്യാസമാണ് കാഴ്ച വെക്കാൻ പറ്റുന്നത് അത് അവർക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നെയാണ് അപ്പം അതിന് പ്രതേകിച്ച് വെല്ലുവിളി കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മള് ക്യാഷ് മുടക്കേണ്ടി വരും ഇപ്പം ഒരു പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിലും ഒരു ഇതാണെങ്കില് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂളില് പോലും നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മള് അതിന് അനുസരിച്ചിട്ടുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന ഒരു വിദ്യർത്ഥിക്ക് അവരുടേതായ ബുക്ക് വാങ്ങണം എങ്കില് അതില് എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മള് കൊടുക്കേണ്ടി വരും അപ്പം അത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടിട്ട് മാത്രമുള്ളതാണ് അതിന് നമ്മൾ എങ്ങനെ പേയ്മെന്റ് ചെയ്യാം അതൊക്കെ ചെറുതായിട്ട് ഒരു വെല്ലുവിളി കാര്യങ്ങളാണ് ചിലപ്പം ഒരു പൈസയും മുടക്കാൻ പറ്റാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പ അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും